ആ തീർച്ചയായും പാലക്കാട് ജില്ലയിൽ ഒരുപാട് സ്വാധീനിച്ച പ്രാദേശിക സർക്കാർ സംരംഭങ്ങളുണ്ട് ഇപ്പോൾ നമ്മള് പറയുകയാണെങ്കിൽ കുടുംബശ്രീ ഒക്കെ അങ്ങനെ ഒരു സർക്കാർ പ്രാദേശിക സംരംഭങ്ങളാണ് അത് ഒരുപാട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ജില്ലേനെത്തന്നെ ഒരുപാട് അത് വികസനത്തിലിട്ടും അല്ലെങ്കിൽ വികസനത്തിലോട്ടും വളർച്ചയിലേക്കും അത് പാലക്കാടിനെ നയിച്ചു എന്ന് പറയാം അതുപോലെത്തന്നെ പാലക്കാട് ജില്ലയിലെ സർക്കാർ ഓഫീസുകൾ നൽകുന്ന സേവനങ്ങൾ അത് വലിയ കാര്യങ്ങൾ തന്നെയാണ് സർക്കാർ സംരംഭങ്ങൾ ഒരുപാട് ഇണ്ട് അതുപോലെത്തന്നെ സുജലം മഴവെള്ളം സംഭരണി യൂണിറ്റ് അതുപോലെ ചിക്കൻ പ്രൊഡ്യൂസർ കമ്പനി സാന്ത്വനം വളൻ്റർ മാർക്കറ്റ് വിപുലീകരണ പരുപാടി അങ്ങനെ ഒരുപാട് സർക്കാർ സംരംഭങ്ങൾ ഒരുപാട് നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ട് അത് തീർച്ചയായും പാലക്കാട് നഗരത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്